അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രദേശത്തുനിന്ന് വച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ നിലയും വിലയും അനുസരിച്ചായിരിക്കും എല്ലാവരും ഒരോരുത്തരുമായിട്ട് ബന്ധപ്പെടുന്നത് ഇപ്പം നമ്മുടെ പ്രദേശത്തിലുള്ള ഒരു ഉയർന്നയാളും ഒരു താഴ്ന്നയാളോട് ഇടപഴകുന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടായിരിക്കും അയാൾ സംസാരിക്കുക എന്നാൽ അയാളുടെ നിലയ്ക്ക് അവരൊക്കൊ ഒത്തൊരാളാണെങ്കിൽ അയാൾ മര്യാദയായിട്ട് സംസാരിക്കും എന്നാൽ ആ പ്രദേശത്ത് അത്ര വിലയില്ലാത്തൊരാളോടാണെങ്കിൽ അയാൾ ഭയങ്കര മോശമായിട്ടായിരിക്കും ഒരു പക്ഷെ സംസാരിക്കുക അതായത് എല്ലാവരടേയും സ്ഥാനവും മാനോം വിലയൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും എല്ലാവരും ഓരോരുത്തരോട് ഇടപഴകുന്നത് അപ്പം ഓരോരുത്തരും ഒരോരുത്തരോടും ഇടപഴകുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും എല്ലാത്തിലും വളരെ ചേഞ്ചുണ്ടാവാറുണ്ട് എല്ലാവരും അവരവരുടെ സ്റ്റാറ്റസിനൊപ്പമുള്ളവരോടായിരിക്കും കൂടുതലായിട്ട് ബന്ധപ്പെടുന്നത് താഴ്ന്നവരോടെല്ലാവർക്കും ഒരു ഒരു പുച്ഛം ഒക്കെ ഉണ്ടാവാറുണ്ട് ലൈക്ക് എല്ലാവരുമായിട്ടും ഒരേപോലെയായിരിക്കില്ല താഴ്ന്നവരോട് ഒരു രീതിയിലും ഉയർന്നവരോട് വേറൊരു രീതിയിലും ഒപ്പമുള്ള രീതിയിൽ നിൽക്കുന്നവരോട് വേറൊരു രീതിയിലും അങ്ങനെ ഓരോരുത്തര് ഓരോ രീതിയിലാണ് ഒരോരുത്തരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് എല്ലാവർക്കും ഓരോ ഓരോ സ്ഥാനമുണ്ട് നമ്മുടെ സമൂഹത്തിൽ ആ സമൂഹത്തിലുണ്ടാവുന്ന സ്ഥാനത്തെ ബേസ് ചെയ്തിട്ടായിരിക്കാം എല്ലാവരും ഓരോരുത്തരുമായിട്ട് ബന്ധപ്പെടുന്നത്